ഞാൻ നിങ്ങളുടെ അടുത്തു നിന്നു എന്താ എൻ്റെ ഹോം വെയേഴ്സിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചു പ്രോഡക്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വാഷിങ്ങ് മെഷീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വാഷിങ്ങ് മെഷീൻ ആദ്യം നമ്മൾ തുണി ആ ഇതാക്കുമ്പം ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിനകത്തു നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് നമുക്ക് ഒരു എർത്ത് അടിക്കുന്നതുപോലെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് നമ്മൾ ആ വെള്ളത്തിൽ തൊടുമ്പം ഒരു ഇത് വരുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റവ് ആയിരുന്നു സ്റ്റവ്വിൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇതില്ലേ ലൈറ്റർ വർക്കിങ്ങ് ആവുന്നില്ല ആദ്യത്തൊരിതു രണ്ട് മൂന്ന് ദിവസം വർക്കിങ്ങായി പിന്നെ അത് വർക്കിങ്ങ് ആവുന്നില്ലായിരുന്നു അതിൽ നിന്നു എനിക്ക് വളരേ എന്താ പറയുക അൺഹാപ്പിയായിട്ടാണ് കസ്റ്റമർ ഇരിക്കുന്നത് അതിനകത്ത് എനിക്ക് ഈ നിങ്ങളിവിടെ നിന്ന് എടുത്തതിൽ മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ പിന്നെ ഞാൻ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരേ അധികം മോശമായിട്ടു ഞാൻ പറയും നമുക്ക് തീരെ കൂളിംഗ് ഇല്ല ഫ്രിഡ്ജിന് ഫ്രിഡ്ജിനു നമുക്കിപ്പോൾ ഒരു ഫ്രീസറിൽ രണ്ടു ദിവസം ഒരു സാധനം വച്ചിട്ടുണ്ടെങ്കിൽപ്പോലും അത് ചെറുതായിട്ടുപോലും ഐസാവുന്നില്ല മൊത്തം അത് കേടായിട്ടുതന്നെ ഇരിക്കുകയാണ് പിന്നെ എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സ് അയൺ ബോക്സ് എടുത്തിട്ട് മൊത്തത്തിൽ പോയിട്ടിരിക്കുകയാണ് ആ എന്താ അയൺ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത് തുണിയൊന്നും തേക്കാൻ അയൺ ചെയ്യാനേ പറ്റത്തില്ല അപ്പൊഴേക്കും അതിങ്ങനെ കയറിപ്പിടിക്കുകയാണ്